അ അതേലോ ഇത് ആരായിരുന്നു ഓക്കെ എന്താ മാം വിളിച്ചത് അ മാം മാം ഇപ്പം മോള് ഇപ്പോൾ പത്ത് കഴിഞ്ഞതാണോ അ ഓക്കെ ഞങ്ങള് ഇവിടെ ഐ ടി ഫീൽഡിലേക്ക് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ബാംഗ്ലൂർ മൈസൂർ കോയമ്പത്തൂർ അങ്ങനെ ഉള്ള ഭാഗങ്ങളിലാണ് ഞങ്ങളുടെ ഇൻസ്റ്റിട്യൂട്ട് വരുന്നത് മോൾക്ക് എവിടെയാണ് താല്പര്യം ബാംഗ്ലൂർ എന്ന് പറയുമ്പം മറ്റുള്ള സ്ഥലങ്ങളെക്കാളും കുറച്ചും കൂടി ഫീസ് കൂടും അവിടത്തെ മറ്റേ ലൈഫ് സ്റ്റൈൽ അറിയാലോ അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും അവിടെ വരുമ്പോൾ ഒരു എറൗണ്ട് ഒരു നാല് ലക്ഷത്തിൻ്റെ അടുത്ത് വരും പഠിക്കാൻ ഹോസ്റ്റൽ ഫീസും കൂടി കൂട്ടിയിട്ടുള്ള പൈസയാണ് നാല് ലക്ഷം രൂപ അതെ അതെ അതെ ഞങ്ങൾ തന്നെ ആണ് അ അതെ ഒരു വർഷത്തെ കോഴ്സാണ് ഈ ഐ ടി ഫീൽഡിലെ ഐ ടി എന്ന് പറയുന്നത് ഇത് പഠിച്ച് ഇറങ്ങിയാൽ ആറ് മാസത്തിന് ഇൻറ്റേൻഷിപ്പ് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിന് കയറാം ഓക്കെ ഞങ്ങള് സെവെൻറ്റി ഫൈവ് തൊട്ട് സെവെൻറ്റി ഫൈവ് പെർസെൻറ്റെജ് തൊട്ടുള്ള മാർക്കുള്ള കുട്ടികളെ ആണ് ഐ ടി ഫീൽഡിലേക്ക് എടുക്കാറുള്ളത് മോൾക്ക് നയൻറ്റി ടു പെർസെൻറ്റെജുള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ ഓക്കെ ആണ് അ അങ്ങനെ ഉണ്ട് കാരണം മെയ്നായിട്ടും ഐ ടി ഫീൽഡ് എന്ന് പറയുമ്പോൾ ഐ ടി ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ മോൾക്ക് എത്ര ഉണ്ടായിരുന്നു ഐ ടി ഫി ഐ ടി ക്ക് സൂപർ ഓക്കെ അപ്പം എന്തായാലും മോള് അഡ്മിഷൻ എടുക്കാൻ പറ്റും അടുത്ത ദിവസങ്ങള് അ അടുത്ത ദിവസങ്ങള് അടുത്ത ആഴ്ച്ചയൊക്കെ ആയിട്ട് മോള് ഇങ്ങോട്ടേക്ക് ഇറങ്ങുവാണെങ്കിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിട്ട് എന്തായാലും പോകാൻ പറ്റും അ ഇവിടുത്തെ അഡ്മിഷൻ ഫീസെന്ന് പറയുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് ഇപ്പോൾ ഫസ്റ്റ് ത്തെ എന്ന് പറയുന്നത് പിന്നെ നിങ്ങള് കയറി കഴിഞ്ഞിട്ട് അടച്ചാൽ മതി